എനിക്ക് ഇതുവരെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്നാർ വട്ടവട പോയ ഒരു ഹൈക്ക് യാത്രയാണ് പിന്നേ അവിടെ പോയാൽ മനോഹരമായ കാഴ്ചകളെന്ന് പറയാനായിട്ട് അവിടെ മെയ്നായിട്ട് മഞ്ഞ് മൂടി നിൽക്കുന്നതാണ് മഞ്ഞ് മൂടി നിൽക്കുന്ന കാണാൻ വല്ലാത്തൊരു വൈബ് തന്നെ ആണ് നമുക്ക് അവിടുത്തെ മെയ്ൻ അവിടെ അവിടെ കാന്തല്ലൂരെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരുപാട് എന്താണ് സ്ട്രോബെറി കൃഷിയും പിന്നെ വെളുത്തുള്ളി ആ ക്യാരറ്റ് കിഴങ്ങ് കോളിഫ്ലവർ അങ്ങനെ വ്യത്യസ്തമായ കൃഷികളൊക്കെ കാണാൻ പറ്റും പിന്നെ നമുക്ക് കൂടുതലായിട്ടും എന്താണ് മഞ്ഞ് മൂടി നിൽക്കുന്നത് കാണാൻ ഒരു വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് പിന്നെ സൂര്യാസ്തമയം കണ്ടിട്ടുണ്ട് എറണാകുളം ബീച്ചിലൊക്കെ പോയപ്പോൾ പിന്നെ അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് നമുക്ക് അത് കാണാൻ വളരെ നമുക്ക് എന്താണ് കൂടുതലായിട്ട് അത് ഇഷ്ടപ്പെടും നമ്മളെ സംബന്ധിച്ചടത്തോളം ഓരോ കാഴ്ചകളും നമുക്ക് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമ്മൾ കാണുന്ന ഓർമയിൽ മിക്ക യാത്രകളും പോകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമയിലിരിക്കും എനിക്ക് ഇതുപോലെ മൂന്നാർ വട്ടവട പോയ മഞ്ഞ് മൂടി നിൽക്കുന്ന കാര്യങ്ങൾ കണ്ടത് എൻ്റെ എൻ്റെ ഓർമയിലായി കൂടുതലായിട്ട് നിൽക്കുന്നത് പിന്നെ നമ്മൾ സൂര്യാസ്തമയം കാണാനായിട്ട് സൺസെസ്റ്റ് സൺസെറ്റ് കാണാൻ തന്നെ ആൾക്കാർ കൂടുതലായിട്ടും വൈകുന്നേരങ്ങളിലാണ് കടൽ തീരത്തിലോട്ട് പോവുന്നത് അവിടെ ചെല്ലുമ്പോൾ തന്നെ എന്താണ് സൂര്യൻ അസ്തമിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു വെൽ പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് അത് നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും കൂടുതലായി ഇഷ്ടപ്പെടുന്ന ഓരോ കാഴ്ചകളാണ് അത്